ആ ടീച്ചറേ ഞാൻ ഈ ഓണ പരിപാടിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണേ ആ നമുക്ക് ഓണം പിള്ളേരുടെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ വയ്ക്കണ്ടേ അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത് പറയാനാണ് ആ ഏതായാലും അത്തപ്പൂക്കള മത്സരം ഉണ്ട് പിന്നെ വടം വലി കസേര കളി ആ അത് നല്ല അഭിപ്രായം ആണ് പിള്ളേർ എന്നാ പടി പഠിച്ച പിള്ളേർ ഉണ്ടോ അറിയാവുന്ന പിള്ളേർ ടീച്ചേർസ് ആ ടീച്ചേർസ് ഉണ്ട് അറിയാവുന്ന ടീച്ചേർസ് ഉണ്ട് നമുക്ക് ആ ആ അത് വെച്ചിട്ട് സെറ്റ് ചെയ്യാം അതെ അതുപോലെ ഡ്രെസ്സിൻറെ കാര്യമായാലും നമുക്ക് എല്ലാം നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സ് തന്നെ വേണോ ആ ആണ് പിള്ളേർക്ക് മുണ്ടും പെൺ പിള്ളേർക്ക് സാരിയും ആയിക്കോട്ടെ ആ പിന്നെ സെറ്റ് സാരിയാണ് നോർമൽ സാരി വേണ്ട ക്കേ ഒരു പാ ഓണ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നേരിയത് സാരിയായിരിക്കും നല്ലത് സാരിയുടുത്താൽ സാരിയുടെ ഭംഗി ഒന്നും കാണാൻ പറ്റില്ല എന്നേ വേണ്ട

ആ ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ എല്ലാ ക്ലാസ്സിലും അത്തപൂക്കളത്തിൻറെ ആ പിന്നെ നമുക്ക് നമ്മുടേതായ സ്കൂളിൻറേതായൊരു വലിയ പൂക്കളം ഇടണം അത് ആ പൂ പൂക്കളുടെ ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കോമ്പറ്റിഷൻ ആ അവർ പിള്ളേരുടെ പൂക്കൾ എല്ലാം പിള്ളേർ തന്നെയാണ് നമ്മളുടേത് അല്ലാതെ വേറെ പറഞ്ഞിട്ടുണ്ട് ആ ആ നമ്മൾ ടീച്ചേർസ് തന്നെയാണ് വലിയ പൂക്കളം ഇടുന്നത് ആ കുഞ്ഞുങ്ങൾ പിള്ളേരുടെ അവർ തന്നെ മത്സരം ആ സാധാരണ വരും പോലെ വന്നാൽ പോരാ ഒരു ഒരു ഒരു മണിക്കൂറെങ്കിലും നേരത്തെ വരണം ആ അതൊക്കെ വേണം അതൊക്കെ അല്ലേ ഒരു രസം ആ കുട്ടികൾ പോയിക്കഴിയുമ്പോൾ സമാധാനമായിട്ട് കഴിക്കാമല്ലോ ആ ഓക്കെ ആ പറയാനാണ് വിളിച്ചത് ടീച്ചറേ ആ ശരി ശരി